ഹൗസ് ബ്രോക്കർ അല്ലേ അതെ എറണാകുളത്തുന്ന് ശ്രുതി ഇതാ എൻ്റെ പേര് എറണാകുളത്തുന്ന് ആണ് വിളിക്കുന്നത് ആ ഞാൻ ഇവിടെ ടെക്നോ കെമിക്കൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണേ അപ്പോൾ ഇവിടുന്ന് ട്രാൻസ്ഫറ് കോഴിക്കോടിലോട്ട് ആണ് അപ്പോൾ ഒരു റെന്റിന് ഹൗസ് കിട്ടോന്ന് അറിയാൻ വേണ്ടീട്ടാണ് വിളിച്ചത്

വൺ ഇയറിലോട്ട് ആണ് ട്രാൻസ്ഫർ വൺ ഇയറ് കഴിഞ്ഞിട്ട് ആ ആ അതെ അതെ ആ മന്ത്ലി ആ ഓക്കെ കുഴപ്പം ഇല്ല

ആ ആ നമുക്ക് ഇവിടെ ഫോട്ടോ എവിടെയാണ് ഉള്ളത് ആ അത്യാവശ്യം ഒരു നല്ല ഏരിയ ആയിരുന്നു നോക്കുന്നത് അപ്പോൾ ആ ആ ആ

ആ ആയിക്കോട്ടെ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴ്ത്തേനും അങ്ങോട്ടേക്ക് വരാൻ ചാൻസ് ഉണ്ട് അപ്പോഴ്ത്തേന് ഒക്കെ സെറ്റ് ചെയ്ത് തന്നാൽമതി ആ ഓക്കെ എന്നാലും

ആ ഓക്കെ ആ ആയിക്കോട്ടെ ആ ഓക്കെ ഓക്കെ